കരകൗശല മേഘലയിൽ നമ്മളാകെ മികച്ച് നിൽക്കുന്നത് ചകിരിയുടെ ചകിരി ഉപയോഗിച്ചിട്ടുള്ള കരകൗശല മേഘലയിലാണ് അതായത് ചകിരിയിൽ നിന്നുണ്ടാക്കുന്ന കയർ അല്ലെങ്കിൽ അതിൽ നിന്ന് ഉപയോഗിക്കുന്ന ഈ ചവിട്ടി അങ്ങത്തെ സാധനങ്ങളാണ് കൂടുതലായിട്ട് കേരളത്തിൽ കൃഷി ഈ മേഖലയിലുള്ളത് അതിനാലപ്പുഴ ജില്ലയിൽ മാത്രമാണത് അധികമായിട്ട് ചെയ്യുന്നത് അതിലും അവർക്ക് ന്യായമായ കൂലി കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് അതായത് അതിൻ്റെ വിപണി ഇടനിലക്കാർ ആണ് ഈ കി സാധനങ്ങൾ ഇവരുടെ കയ്യിൽ നിന്നും വേടിച്ചിട്ട് വിപണിയിലെത്തിക്കുന്നത് വിപണിയെന്ന് പറയുന്നത് വിദേശീയരെ മാത്രം ലക്ഷ്യം വെച്ചു കൊണ്ടുള്ള വിപണിയാണ് നമ്മുടെ നാട്ടിലെല്ലാം ആൾക്കാർ വേടിക്കുന്നത് ആട്യം കൂടുതൽ സാധനങ്ങൾ ഇങ്ങനെ കരകൗശല വസ്തുക്കൾ വേടിക്കുന്നത് നാട് കാണാനെത്തുന്ന പുറത്തു നിന്നുള്ള ആൾക്കാരാണ് അപ്പോൾ ഇടനിലക്കാർക്ക് ലാഭം ഉണ്ടാകുക എന്നല്ലാ അല്ലാതെ ഇത് നിർമ്മിക്കുന്ന തൊഴിലാളികൾക്ക് ന്യായമായ കൂലി സ്ഥിരമായി കിട്ടുന്നില്ലാ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്